എനിക്ക് ഷർട്ട് തയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതുപോലെ യൂണിഫോമ് അതുപോലെ നേഴ്സിങ് ഡ്രസ്സുകൾ സൂട്ട് അങ്ങനത്തെയൊക്കെ തയ്ക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്നാന്ന് വെച്ചാൽ അത് കാണുമ്പോൾ ഈസിയായിട്ട് തോന്നും പക്ഷേ അത് ഒന്നു വെട്ടി വെട്ടി കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ അത് പിന്നെ തോന്നും അയ്യോ അതു ഭയങ്കര പാടാണല്ലോ തയ്ക്കാനായിട്ട് എന്നു തോന്നും അത് പിന്നെ ഇങ്ങനെ വലിയ വലിയതൊക്കെ കാണുമ്പോൾ ഭയങ്കര തയ്ക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഒന്നും മുന്നോട്ടു പോകാൻ പറ്റില്ല കാരണം എന്താ നമുക്ക് തയ്യൽ മാത്രമല്ലല്ലോ വേറെ പല കാര്യങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് ഈ തയ്യൽ എന്നു വെച്ചാൽ ഏറ്റവും എളുപ്പമുള്ളൊരു ഇതെന്താണെന്നു വെച്ചാൽ ചുരിദാർ തയ്ക്കുന്നതുതന്നെ ഏറ്റവും എളുപ്പം നൈറ്റി നൈറ്റി ചുരിദാർ കട്ടിങ് നൈറ്റിക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്ക്കാം വേറെ വല്ലതും പിന്നെ യൂണിഫോമൊക്കെ എന്നോട് പലരും തയ്ക്കാമോയെന്നു ചോദിച്ചിരുന്നു പക്ഷേ എനിക്ക് യൂണിഫോം ഈ കോട്ടും കോട്ടൊക്കെ തയ്ക്കണമെങ്കിൽ കുറച്ച് പാടല്ലേ അതൊക്കെ നല്ല എക്സ്പീരിയൻസുള്ള തയ്യൽക്കാർക്കൊക്കെ പറ്റുള്ളൂ നമ്മളൊക്കെ ഈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇത് ഭയങ്കര കഷ്ടം തയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ നോക്കും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കും അളവും ഇതൊക്കെ ഞാൻ മെയിനായിട്ട് എൻ്റെ പിള്ളേരുടെ അളവാണ് നോക്കുന്നത് അപ്പോഴ് തയ്ച്ചു വന്ന ഒന്ന് ഇടീച്ചു നോക്കാമല്ലോ പിന്നെ പുറത്ത് തയ്ച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ ഞാനങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും സമയം കിട്ടാറില്ല അതാണ് മെയിനായിട്ടുള്ള ഒരു കാരണം പിന്നെ അതുപോലെ ബെഡ്ഷീറ്റ് അതുപോലെ പില്ലോ കവറ് പിന്നെ ജനൽവിരി അതൊക്കെ ഈസി ആയിട്ടുള്ള തയ്പ്പായതുകൊണ്ട് അങ്ങനത്തെയൊക്കെ തയ്ക്കും ഈ കട്ടിയുള്ള വസ്ത്രം കട്ടിയുള്ള തുണികൊണ്ടൊക്കെ തയ്ക്കണമെങ്കിൽ ഇച്ചിരി പാടാണ് അതിനുള്ള മെഷീനൊന്നും എനിക്കില്ല അതുകൊണ്ട് സാധാരണ സിംഗിളിൻ്റെ മെഷീൻ എനിക്ക് ഉള്ളത് അപ്പോൾ ആ ഈ മെഷീനിൽ ചിലപ്പോൾ സ്റ്റിച്ച് പിടിക്കുകയില്ല സ്റ്റിച്ച് നമ്മൾ തയ്ച്ചു വരുമ്പോഴായിരിക്കും സ്റ്റിച്ച് പൊട്ടിപ്പോകുന്നത് സ്റ്റിച്ച് പൊട്ടിപ്പോയി കഴിയുമ്പോൾ അത് കുറച്ചു നേരത്തേക്കൊക്കെ ഞാനൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കും കാരണം നൂലും അത് നൂല് കോർത്ത് അതൊക്കെ ഇട്ടു തയ്ച്ചും പിന്നേയും പിന്നേയും പിന്നേയും അതു പൊട്ടി പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ ആ കാര്യം അവിടെ ഉപേക്ഷിക്കും എന്നിട്ട് അവിടെ ഇരുന്ന് പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് എനിക്കൊരു തോന്നിയാൽ എന്നാൽ തയ്ച്ച് പൂർത്തിയാക്കാം എന്നു തോന്നുകയാണെങ്കിൽ ഞാനത് പിന്നേയും തയ്ച്ച് അത് എത്ര തയ്യൽ ഞാനിട്ടു തയ്ച്ചാലും ഞാനത് സ്റ്റിച്ച് മുഴുവനഴിച്ച് പണിയും അത് എനിക്ക് അങ്ങനെ അഴിച്ചു പണിത് അത് എൻ്റെ എനിക്ക് തൃപ്തിയാവുമോ എനിക്കത് തയ്ച്ച് തൃപ്തിയാണെന്നു തോന്നുവോളം വരെ എത്ര സ്റ്റിച്ചിട്ട് ഞാൻ തയ്ച്ചാലും ഞാൻ അത് അഴിച്ചു പണിയും അതാണ് എൻ്റെ ഒരു കുഴപ്പം പിന്നെ അതുപോലെ എനിക്ക് തുന്നലെന്നു പറഞ്ഞാൽ വലിയ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് തുന്നൽ ഞാൻ പല പല പലവിധ ഫാഷനബിളൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തയ്ക്കണം എന്നുണ്ട് പിന്നെ അതുപോലെ എൻ്റെ മകൾക്ക് ഞാൻ നല്ല ഫ്രില്ലൊക്കെ വെച്ച് നല്ല ലൈനിങ്ങ് ഈ എല്ലാം ഫ്രില്ലും ഈ ഈ നെറ്റൊക്കെ ഇട്ടിട്ട് നല്ല നല്ല ഉടുപ്പുകളൊക്കെ തയ്ച്ചു കുഞ്ഞിലെ അമ്മ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുടുപ്പുകളൊക്കെ തയ്ച്ച് ഞാൻ തയച്ച് ഉടുപ്പ് എൻ്റെ മകൾ ഇട്ടു കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് മറ്റുള്ളവർ കാണുമ്പോൾ ആ അമല തയ്ച്ച ഉടുപ്പാണോ നന്നായിട്ടുണ്ടല്ലോ അത് കേൾക്കുമ്പൊഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇപ്പം ഇപ്പോഴെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോകാലം കഴിയുമ്പോഴും വേഷം മാറി മാറി കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രില്ല് വെച്ചു തയ്ക്കുന്നതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല നമ്മൾ ഫ്രില്ല് വെച്ചു തയ്ക്കുന്നതൊന്നും എന്നാ എന്താണെന്നു വിചാരിച്ചാൽ ഇപ്പോൾ എല്ലാം ഈ ഒഴുക്കനായിട്ടുള്ള ഓഹ് ഫ്രില്ലൂള്ള ഒന്നുമല്ല ഇട്ടാൽ ഇട്ടു എന്നു തോന്നുന്നപോലത്തെ ഉടുപ്പുകളാണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നത് പിന്നെ ചില ഉടുപ്പുകളെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തയ്ക്കാനേ തോന്നുകയില്ല എത്രയും പെട്ടെന്ന് അതിലും ഭേതം നമുക്ക് ഒരെണ്ണം മേടിക്കാം നമുക്ക് ഇഷ്ടമുള്ളത് പോയി മേടിക്കാമെന്ന് തോന്നും മേടിക്കാൻ ചല്ലുമ്പോഴോ ഇരട്ടി വില കൊടുക്കണം ഇരട്ടി വിലയുടെ കാര്യം ഓർക്കുമ്പോഴോ എന്നാൽപ്പിന്നെ ഒരു വില കുറഞ്ഞൊരു തുണി മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്ക്കാം എന്നൊരു തോന്നൽ അങ്ങനെയൊരു ടെൻഡൻസി എനിക്കുണ്ട് ഞാൻ എനിക്കൊരു ചുരിദാറിനുവേണ്ടി ഒരു തുണിക്ക് പോയപ്പോൾ തുണിയുടെ വില കേട്ടപ്പോൾ ഞാനവിടെ നിന്ന് പോന്നു പോന്ന് അതു കഴിഞ്ഞ് ഞാൻ പിന്നെ വേറൊരു കടയിൽക്കയറി അതിലും വില കുറഞ്ഞൊരു തുണി കൊണ്ടുവന്ന് ആ ഇഷ്ടമുള്ള ഡിസൈ ആ ഫാഷനിൽ എനിക്ക് തയ്ച്ച് ഇടാം അത് വില കുറഞ്ഞാലും നമ്മളെ തയ്പ്പിലായിരിക്കും അതിൻ്റെ ആ ഭംഗിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര വില കുറഞ്ഞ ഒരു തുണിയായാലും അത് തയ്ച്ച് കഴിയുമ്പോൾ അത് അത്രയും ഭംഗിയിൽ വരുമ്പോൾ അതു കണ്ട് നമുക്കൊരു കണ്ട് നമുക്കൊരു സന്തോഷം ആനന്തമുണ്ട് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഈ യൂണിഫോം തയ്ക്കൽ കുറച്ചുപാടാണ് അത് എന്നാ എന്താണെന്നു വിചാരിച്ചാൽ അതിന് ഈ ഒന്നാമത് നല്ല മെഷീനൊക്കെ വേണം എനിക്കങ്ങനെ മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നമ്മൾ ഈ കനം കുറഞ്ഞ ഈ സിംഗിൾ മെഷീനിലൊക്കെ തയ്ക്കുമ്പോൾ പെട്ടെന്നു പൊട്ടി പൊടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കൊന്നും ഞാൻ സ്വീകരിക്കാറില്ല